ഗതാഗത രീതികള് മെച്ചപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പോൾ ആൾക്കാരെല്ലാവരും സ്വന്തമായ രീതിയിലുള്ള വാഹന സൗകര്യത്തിലേക്കൊക്കെ മാറി പിന്നെ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ റോഡുകളു വലുതാക്കി എടുക്കുക എന്നുള്ളതാണ് ഗതാഗതം മെച്ചപ്പെടാനുള്ള എറ്റവും വലിയ മാർഗം അല്ലാതെ ഇന്ന് കാണുന്ന രീതിയിലുള്ള പഴയ റോഡിൽകൂടി കൂടുതൽ വാഹനങ്ങള് ഓടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാവുമ്പോൾ അത് മെച്ചപ്പെടാൻ പറ്റില്ല എന്നുള്ള കാരണം അറിയാല്ലോ കാരണം ട്രാഫിക് ജാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ഒഴിവാക്കണമെങ്കില് ആദ്യം വേണ്ടത് റോഡാണ് ആദ്യം വലുതാക്കുകയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം അതിന് ശേഷം വാഹനങ്ങളുടെ എണ്ണം കൂട്ടാം ആ വാഹനങ്ങളിലെ എണ്ണം കൂട്ടി ഇപ്പോൾ ലൈൻ ബസ് ആണെങ്കിലും ശരി ട്രാൻസ്പോട്ട് സർക്കാര് ട്രാൻസ്പോട്ട് ബസ് ആണെങ്കിലും ശരി അത് അങ്ങനെ കൂട്ടിയാൽ മതി പക്ഷേ കാലക്രമേണ അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ടി വരില്ല എന്നാ എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും സ്വന്തം എല്ലാ വീടുകളിലും വാഹനങ്ങള് എന്നുള്ള നിലയിലേക്ക് എത്തുവാണെങ്കിൽ പിന്നെന്താ അപ്പോൾ വേണ്ടതെന്താ റോഡാണ് ബസ്സുകളുടെ എണ്ണം കാലക്രമേണ കുറഞ്ഞ് വരികയെ ഉള്ളു കാരണം ബസ് കയറാനുള്ള ആളുകള് കുറയാനേ സാധ്യതയുള്ളൂ പക്ഷേ റോഡ് വലുതാവണം കാരണം ഒരു ബസ്സിന് പകരം ഒരുപാട് ചെറു വാഹനങ്ങള് റോട്ടില് ഇറങ്ങുവാണ് അതുകൊണ്ട് ഈ വാഹനങ്ങളെ അക്കമഡേറ്റ് അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടത്ര സൗകര്യം റോഡുകളിലുണ്ടാവണം പാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങള് ഉണ്ടാവണം ഗതാഗത്തില് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയണം ട്രാഫിക്കൊക്കെ പരിഷ്കരി പരിഷ്കരിച്ചു കൊണ്ടുള്ള നടപടികൾ വേണം അല്ലാതെ പഴയറോഡിക്കൂടെ തന്നെ കൊണ്ട് മുന്നോട്ട് പോവാൻ പറ്റില്ല അതില് ഇപ്പോൾ യാത്രയിൽ പരിഹാരം കാണാൻ പറ്റിയ വിഷമമായ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രത ഇല്ല എന്നുള്ളതാണ് അതായത് ഒരു സർക്കാരിന് ഇതൊക്കെ ചെയ്യാനുള്ള ഇച്ഛാശക്തി ഇതൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങള് അതിലുപരി കറക്ഷൻ ഈ കാര്യങ്ങളൊക്കെ പരിഹാരിക്കാണെങ്കില് യാത്ര സുഗമമാക്കാൻ പറ്റും